ആ ആ സാർ പറഞ്ഞുകൊള്ളൂ സാറിൻ്റെ പേരൊന്നു പറയാമോ സാർ സാറെന്തൊക്കെയാണ് ഓർഡര് ചെയ്തതെന്ന് ഓർക്കുന്നുണ്ടോ ആ ആ ആ ആ സാർ ഞാൻ ഞാനാണെങ്കില് ഇത്തിരി ട്രാഫിക്കിലുംപ്പെട്ടു പിന്നെ സാർ നല്ല വെതർ കണ്ടീഷൻ ഇത്തിരി മോശമായിരുന്നു മഴ ഭയങ്കരം മഴയും പിന്നെ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാറെ സാറൊരു ഒരു ഒരു അരമണിക്കൂറും കൂടെ തരാമോ സാർ മ്മ് സാർ അത് ഞാൻ പറഞ്ഞുവല്ലോ സാർ വെതർ കണ്ടീഷനൊക്കെ ഇത്തിരി മോശമായിരുന്നു ഭയങ്കരം മഴയായിരുന്നു പിന്നെ ഭയങ്കരം മഴയുമായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി ട്രാഫിക്ക് പ്രശ്നവുമുണ്ടായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് സാർ ഇത്രയും ലേറ്റായത് അത് സാർ ഞങ്ങള് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിതുവരെ ഒരു വീഴ്ചയും വരുത്തിയില്ല പക്ഷേ ഇന്ന് സാർ ഞങ്ങളുടെ ഡെലിവറി ബോയിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല സാർ അപ്പോള് ഞങ്ങള്ക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടായിരിക്കും അല്ലാത്തപ്പോള് ഞങ്ങൾക്കിങ്ങനെ കംപ്ലെയിൻറ്റൊന്നും ഇല്ലാത്തതാണ് സാർ സാര് ഒരു അരമണിക്കൂര് കൂടെയൊന്ന് ക്ഷമിക്കാമോ അതായത് ഞങ്ങൾ പെട്ടെന്നുതന്നെ സാധനം കളക്ട് ചെയ്തിട്ട് ഇപ്പോള് തന്നെ വരാം സാർ ഞാനത് എൻ്റെ മാനേജറോടൊന്ന് ചോദിച്ചിട്ട് ഞാനത് സംസാരിക്കാം സാർ സാറേതായാലും ചോദിച്ചത് വളരെ മാന്യമായിട്ടാണ് സാർ ഞാൻ ഒരു പത്ത് ഒരരമണിക്കൂറും കൂടെ തരുമായിരുന്നെങ്കില് ഞങ്ങള് പെട്ടെന്നുതന്നെ ഡെലിവറി ചെയ്യാമായിരുന്നു സാർ ഇന്ന് ട്രാഫിക്കും പിന്നെ അങ്ങനത്തെ വെതർ കണ്ടീഷനും ഭയങ്കരം മഴയായിരുന്നു സാറെ ഈ എറണാംകുളം ഭാഗത്തൊക്കെ അതുകൊണ്ടായിരുന്നു സാർ ഇത്രയും ഡിലെയായത് എന്നാലും സാർ അത് ഞാനൊന്ന് അതോറിറ്റീസുമായിട്ടൊന്ന് ഒന്ന് ചോദിച്ചിട്ട് കാരണം എനിക്ക് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് ഞാൻ പറയാം അതുപോരെ സാറിന് സാറിന് അർഹമായിട്ടുള്ള എല്ലാ ഇതും ഞങ്ങൾ ചെയ്തുതരാം സാർ സാർ ക്ഷമിക്കണം സാർ ഞങ്ങളൊരു സാറൊരു പതിനഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാമോ സാർ ആ പതിനഞ്ച് മിനിറ്റ് അല്ല സാർ ശരി സാർ പത്ത് മിനിറ്റ് എൻ്റെ പേര് തോമസ് തോമസ് തോമസ് ആ ശരി ശരി സാർ താങ്ക് യൂ സാർ